എൻ്റെ കാലത്ത് മലയാളം പഠിച്ചത് അമ്മയിൽ നിന്നാണ് പണ്ട് കാലത്ത് സ്കൂളിൽ നിന്നും മലയാളം പഠിക്കുവായിരുന്നു ഇന്നത്തെപോലെയുള്ള സാഹചര്യം നമുക്ക് പഠിക്കാൻ ഉള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരുന്നില്ല ഇതേപോലെ നമുക്ക് ഇന്നത്തെപോലെ കളിക്കുടുക്കയായാലും ചെറിയ മാസികകൾ ആയാലും നമുക്ക് ഒന്നും കിട്ടുകയില്ലായിരുന്നു അന്ന് അമ്മയിൽ നിന്ന് നമ്മൾ ഓരോന്നും പഠിച്ചെടുത്തു പിന്നെ സ്കൂളിൽ പോവാൻ തുടങ്ങിയപ്പോൾ സ്കൂളിൽ നിന്നും അദ്ധ്യാപകരുടെ പരിശീലനം കൊണ്ടും നമ്മൾ പഠിച്ചെടുത്തു പിന്നെ ന്യൂസ് പേപ്പർ വരുത്തുമായിരുന്നു അതും വായിച്ച് നമ്മൾ കുറെയൊക്കെ പഠിച്ചു മലയാള ഭാഷ ആണ് നമ്മുടെ ഏറ്റവും നല്ല ഭാഷയായിട്ട് എനിക്ക് തോന്നുന്നത്